ആ ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊതുവേ ഇങ്ങനെ മലയിലൊന്നും അങ്ങനെ കയറാൻ വലിയ താല്പര്യല്ലാത്തൊരാളാണ് കാരണം എനിക്ക് ഇങ്ങനെ സാധാ ഉള്ള സ്ഥലങ്ങള് പാർക്കുകള് ആ ബീച്ചുകള് അങ്ങനെയുള്ള മ്യൂസിയങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനാണ് എനിക്ക് കൂടുതലും ഇഷ്ടം എനിക്കിങ്ങനെ കഷ്ടപ്പെട്ട് അ ബുദ്ധിമുട്ടി പിന്നെ അങ്ങനെയൊന്നും പോയി എവിടെയും പോയി കാണാനൊന്നും എനിക്ക് വല്ല്യ താല്പര്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊരു പോയ സ്ഥലമെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പിന്നെ ഞങ്ങൾക്ക് കോഴിക്കോടിൽനിന്ന് അതായത് ഞാൻ കോഴിക്കോടാണല്ലോ അപ്പോൾ കുറേ പേര് വീട്ടില് കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് പറഞ്ഞു വയനാട്ടിലേക്കൊരു ട്രിപ്പിന് ഒരു ദിവസം ഞങ്ങള് വയനാട്ടിലേക്കൊരു ട്രിപ്പിന് പോയതാ നമുക്കിവിടെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയനാടാണല്ലോ അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങളൊരു ട്രിപ്പ് പോയപ്പോൾ അവിടെ ഒരു മയിലാടിപ്പാറയെന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് നമുക്കിവിടെ കൽപ്പറ്റ ബൈപ്പാസിൻ്റെ അവിടെയാണെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് കയറിയത് തന്നെ എൻ്റെ അമ്മേ കുന്ന് കയറി മടുത്തു പോയിരുന്നു എനിക്ക് ഞാൻ പോയല്ലോയെന്നായിപ്പോയി പിന്നെ പോയ സ്ഥലത്ത് നമുക്ക് തിരിച്ച് വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ പോയി കണ്ട് പിന്നെ എങ്ങനെയല്ലോ കയറിപ്പോയി പിന്നെ പിന്നെ ഞാൻ അവരോട് പറഞ്ഞു ഇനി ഇങ്ങനത്തെ പരിപാടിക്ക് ഞാനില്ല കാരണം എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് എവിടെ പോവുന്നതും എനിക്ക് ഇഷ്ടമല്ല